ഹലോ ആ അതെല്ലോ അതെല്ലോ ആ ആ പറഞ്ഞോളൂ ചോദിച്ചോളൂ എന്നത് ആണ് അറിയാൻ ഉള്ളത് ആ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് എത്ര സ്ക്വയർ ഫീറ്റാ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് ആ

അതിപ്പം പിന്നെ പല പെയിൻറിനും പിന്നെ പല ഇതാണ് ചില ഏഷ്യൻ പെയിൻറ് പോലുള്ളതിന് നമുക്ക് ഏരിയ കൂടുതൽ കിട്ടും അപ്പം നമുക്ക് അളവ് കുറച്ച് മതിയാവും പിന്നെ ബർഗറ് ഇങ്ങനെ ഈ പിന്നെ ഇൻഡിഗോ ഇതിനൊക്കെ ചിലപ്പോൾ ഏഹ് ഏരിയ കൂടുതൽ അല്ല കുറവായിരിക്കും അപ്പം നമുക്ക് ലിറ്ററിൻ്റെ അളവുകളും അതിന് അനുസരിച്ച് വ്യത്യാസം വരും ഏത് പെയിന്റാണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക പിന്നെ അതിന് അനുസരിച്ചുള്ള ഇതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അ ആ ആ ആ ആ അത് ആ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് പറഞ്ഞ് തരാം അത് എന്തൊക്കെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് പെയിൻറ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഏഷ്യൻ ആണോ അതൊ ഇൻഡിഗോ ആണോ ആ പിന്നെ ഏഷ്യൻ പെയിൻറ് നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് പെയിൻറ് എപ്പോഴും നിലവാരമുള്ളതാണ് സാറിന് നൂറിൽ നിൽക്കുന്ന പറയുമ്പോൾ നമ്മൾ വൈറ്റ് കളറ് അതാണ് കൂടുതലായിട്ട് ഇപ്പം ഉള്ളത് നമുക്ക് പിന്നെ ആദ്യം പുട്ടിയിട്ട് പിന്നെ ബ്ലഡിന് പിടിച്ചിട്ട് പുട്ടി കഴിഞ്ഞ് അത് പ്രൈംമറടിച്ച് അത് ഒരു എമർഷൻആല് രണ്ട് കോട്ടൊക്കെ അടിക്കുമ്പോഴ്ത്തേനും നല്ല ഗ്ളൈസിങ് ആകും നല്ല ഗ്ളൈസിങ് ആകും അപ്പം അത് മുറികൾക്ക് എപ്പോഴും ആ പിന്നെ ഇന്നറ് ഒക്കെ ചെയ്യുന്നത് പിന്നെ വൈറ്റ് തന്നെയാണ് മെച്ചം പിന്നെ ആ നമുക്ക് പുറത്ത് വരുമ്പോൾ പുറത്ത് ഒന്നെങ്കിൽ വൈറ്റ് കൊടുത്തിട്ട് ഈ ഷെഡിനാത്ത് നമുക്ക് പിന്നെ ബ്രൗണോ അല്ലെങ്കിൽ ഈ ഡാർക്ക് ചെയ്യാം പിന്നെ അത് ചെയ്ത് വരുമ്പം നല്ല ഇതാകുന്നത് മ് ആ പിന്നെ നമുക്ക് അത് ബെയിസിക്കായിട്ട് ചെയ്ത് പോകണമെന്ന് ഉള്ളത് ഉള്ളു നമുക്ക് പുട്ടി ഇട്ടിട്ട് വേണേൽ ചെയ്യാം ആണെങ്കിൽ നമ്മുടെ ഈ തേപ്പിന്റെ ഈ പാടുകളൊന്നും വരാതെ നല്ല നല്ല ഫിനിഷിങ് വർക്ക് ആയിട്ട് വരും ഫിനിഷിങ് ആകും ആ ഓ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏഷ്യൻ പെയിൻറ്റൊക്കെ ആകുമ്പോൾ ആ ഇച്ചിരി ക്വാളിറ്റിയുള്ള ഇത് അടിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഇതായിട്ട് തന്നെ നിന്നോളും ഓ പിന്നെ ഞാൻ ഇന്നാണ് വന്ന് നോക്കിയിട്ട് നമുക്ക് ഞാൻ അത് മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തരാം പിന്നെ അത് ഞാൻ വന്ന് നോക്കാം പിന്നെ അവിടെ ആ എപ്പം വേണേലും വരാം നാളെ ഒരു പത്ത് മണി ആകുമ്പോഴ്ത്തേന് പത്ത് മണി ആകുമ്പോഴ്ത്തെനും വരാം പിന്നെ ചിലപ്പം ഒന്ന് വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ലൊക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞ് തന്നാൽ മതി ഓക്കെ